ഞങ്ങളുടെ ചുറ്റുപാടുള്ള കളികളില് ഫുട്ബോള് ക്രിക്കറ്റ് ക്രിക്കറ്റില് അണ്ടർ ആം ഉണ്ട് ഓവർ ആം ഉണ്ട് പിന്നെ ഹോക്കി പിന്നെ ടെന്നീസ് പിന്നെ ഷട്ടിൽ അങ്ങനത്തെ അങ്ങനെ എന്തെല്ലാം ഉണ്ട് ഞങ്ങളുടെ ചുറ്റുപാട് കളി ചുറ്റുപാട് കളി ഞങ്ങൾ കളി കുറെ കളിക്കുന്നുണ്ടല്ലോ പക്ഷെ അതില് വെച്ചിട്ട് നല്ല ഞങ്ങൾ നല്ല കളിക്കല് ഗെയിംസ് എന്തെന്ന് ചൊല്ലിയെങ്കിൽ ഫുട്ബോൾ ഫുട്ബാൾ എന്നുവെച്ചാൽ ഞങ്ങള് ഒരു ലൈഫ് ലൈൻ ഞങ്ങൾ ചൊന്നാൽ ഗെയിംസ് നല്ല ഒരു ഇൻട്രസ്റ്റ് ഇല്ല ഇൻട്രസ്റ്റ് വരാനും പോകുന്നില്ല ഫുട്ബാൾ എന്നുവെച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ അത്ര ലൈക്കാകിയെന്ന് ഏന്തില്ലെങ്കിലും മഴ ഇല്ല വെയിലല്ല എന്തുവല്ല ഏത് സമയത്ത് വേണെൽ നമുക്ക് കളിക്കാം അതുക്കൊരു സീസൺ ഇല്ല ഫുട്ബോളിന് ഫുട്ബോൾ കളിക്ക് നല്ല മജ്ജ് ആണ് എപ്പോൾ മഴയ്ക്ക് ആ മഴക്കാലത്ത് കളിക്കുന്നതില്ലേ ഫുട്ബോൾ എപ്പം എന്തോരം മജ്ജ് ആ മഴ നനഞ്ഞിട്ടും മഴയത്ത് ഗോള് പോസ്റ്റിൻ്റെ കെട്ടി നിൽക്കുമ്പോൾ അവിടെ പോയിട്ട് അവിടെ പോയിട്ട് അടിക്കലും ചേറില് വീണിട്ട് ജേഴ്സി മണ്ണായിട്ടു പോവലും അതെന്തോരം മജ്ജാ ഫുട്ബോള് പിന്നെ ഞമ്മളാ ഈ ഇപ്പളത്തെ അതെല്ലാം നോക്കിയാൽ ഫുട്ബോള് തന്നെ നല്ല ഇതുള്ള പ്രധാനമുള്ള വേറെ ഏത് ഗെയിംസ് അത്രയും ഇല്ല പിന്നെ ഗെയിംസ് ഉണ്ടാകും പക്ഷേ ഞങ്ങൾ കളിക്കല് ഫുട്ബോൾ തന്നെ അതില്ലെങ്കിൽ ഞങ്ങള് ഒരു ഇത് ഫുട്ബോള് ഇല്ലെങ്കിൽ പിന്നെ ഫുട്ബോളിൻ്റെ നല്ല പ്രത്യേകത എന്താന്ന് വെച്ചെങ്കിൽ എന്താണെങ്കിൽ നമുക്ക് അത് കളിച്ചെങ്കിൽ അത് നല്ലത് അത് അല്ലെങ്കിൽ നമുക്ക് ജോഗ്ഗിങ് ആക്കി നമുക്ക് ഡെയ്ലി ജോഗ്ഗിങ് ആക്കണ്ടതിൻ്റെ ആവിശ്യം ഇല്ല നമ്മൾ പറഞ്ഞിട്ടാണ് കളിക്കുന്നത് ഒരുമണിക്കൂർ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറാണ് അപ്പോൾ നമുക്ക് ഫുട്ബോളിന് അത്രയും ചിലവുള്ളു നമ്മൾ വെറുതെ ഒരുമണിക്കൂറ് ഇതാകുന്നതിനെ കാട്ടിൽ നമുക്ക് വൈകിട്ട് ഒരുമണിക്കൂർ പാഞ്ഞങ്ങു നമുക്ക് ജോഗ്ഗിങ് ആക്കിയാലായി പിന്നെ ഈ ക്രിക്കറ്റിനെ കുറിച്ചിട്ട് ചെല്ലണമെന്ന് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ക്രിക്കറ്റ് എന്തെന്നാണെങ്കിൽ അതോര് മജ്ജ തന്നെ ക്രിക്കറ്റ് കളിക്കുന്നത് എന്തെന്നല്ലെങ്കിൽ ഒര് പത്ത് പന്ത്രണ്ട് ആളാകുന്ന് ഒരു ടീമില് പത്ത് പന്ത്രണ്ട് ആളാക്കിയിട്ട് ഞങ്ങൾ എന്താക്കുന്നെന്ന് വെച്ചെങ്കിൽ എങ്കിലേ ഫസ്റ്റ് ടോസ് ഇടുന്ന ടോസ് ഇട്ട് ടീം ആകുന്നത് അങ്ങനെ ഞങ്ങൾ ബാറ്റിംഗ് ബോളിങ് പിന്നെ ഞങ്ങളോടധികം കളിക്കൽ നിങ്ങൾ അണ്ടർ ആം തന്നെ ക്രിക്കറ്റ് അണ്ടർ ആം ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഗ്രൗണ്ട് ഉണ്ട് രണ്ട് ഗ്രൗണ്ട് ഉണ്ട് അപ്പുറത്തു കളിക്കലും അണ്ടർ ആം തന്നെ അണ്ടർ ആം ഇല്ലെങ്കിൽ അത് മജ്ജ വേറെ ഈ അണ്ടർ ആം കളിക്കുന്ന കാശിലൂടെ മാത്രമേ ഉള്ളു വേറെ പുറത്തില്ല ഈ അണ്ടർ ആം ആര് പുറത്തു കണ്ടുപിടിച്ചിട്ടുമില്ല വേറെ ഈ അണ്ടർ ആം കാശ് കൊടുക്കാതെ എന്തോ ചെനിക്ക് ചീന്നിട്ട് പോയിരുന്നു ആ ഒരു കളി അണ്ടർ ആം കളിക്കുന്നത് ഇപ്പോൾ അധികം വാർഡ് ക്രിക്കറ്റ് മാച്ചും അതും ഇതും എല്ലാം ഉള്ളത് അണ്ടർ ആം തന്നെ അണ്ടർ ആം അത് ഒരു മജ്ജ വേറെ തന്നെ അണ്ടർ ആം കളിക്കുന്ന എന്തല്ലെങ്കിൽ സ്പിന്ന് പോലുംതൊട്ട് പോലും അറിയില്ല കട്ടർ വെക്കും അടിയിൽ കോലും മെല്ലെ വെച്ചിട്ട് പായലും അതൊരു മജ്ജ തന്നെ പിന്നെ ക്രിക്കറ്റില് പിന്നെ അമ്പയർ ഉണ്ട് അമ്പയറിൻ്റെ ഡിസിഷൻ ഉണ്ട് അമ്പയർ എന്ത് ചൊല്ലി അതാണ് ക്രിക്കറ്റില് ഒര് ഇതായിട്ട് നിൽക്കുന്ന പിന്നെ ചിലരുടേതുണ്ട് അമ്പയർ ചില പിരാന്തൻമാർ അമ്പയർ അവർ ഇതെന്താക്കി അതെല്ലാം പിരാന്തൻമാർ പിന്നെ ഈ ക്രിക്കറ്റ് എന്തിലെങ്കിൽ ഫുട്ബോൾ പോലെയൊന്നുമല്ല ക്രിക്കറ്റിന് നമ്മൾക്ക് ഈ മഴക്കാലത്തു കളിക്കാൻ കഴിയുന്നില്ല ഫുട്ബോൾ ഇല്ലെങ്കി ഏത് തണ്ണി കൊണ്ടെങ്കിലും അത് മറ്റേ കൊണ്ടെങ്കിലും ഫുട്ബോൾ എങ്ങനെ പാഞ്ഞിട്ടും കളഞ്ഞിട്ടും കളിക്കാം പക്ഷെ ക്രിക്കറ്റ് ആവല്ല ക്രിക്കറ്റ് ഈ വെയിൽ കാലത്ത് മാത്രം ജസ്റ്റ് മഴ വന്നെങ്കിൽ ബോൾ പായില്ല അത് നന്നാവില്ല പിന്നെ ഓവർ ആം നെ കുറിച്ച് ചൊല്ലാനുണ്ടെങ്കിൽ ഓവർ ആം കളി അത് മജ്ജ വേറെ തന്നെ ഓവർ ആം എന്തല്ലെങ്കിൽ ബാക്കിലൊരു വിക്കറ്റ് കീപ്പറ് നിൽക്കുന്ന വെച്ചിട്ട് ബോളടിക്കുന്ന ആ ഒരടി അടിക്കുന്ന മിസ്സായി കീപ്പറിനെ വിക്കറ്റ് ബോൾ ഔട്ടാക്കുന്ന അതൊരു മജ്ജ തന്നെ ഓവർ ആം ൻ്റെ പിന്നെ ഈ കളികളില് കുറെ കളിയുണ്ട് പിന്നെ നമ്മള് ഈ ഷട്ടില് കളിക്കുന്ന ടെന്നീസ് അത് അപ്പം തന്നെ കളിക്കുന്നതാണ് നടുക്ക് ഒരു കോർട്ട് ഇങ്ങനെ വലിക്കുന്ന എന്നിട്ട് നമ്മൾ ഇങ്ങനെ അടിക്കുന്ന എന്നിട്ട് അപ്പുറത്തെ പോയിൻറ്റ് പോയിൻറ്റ് കളിക്കുന്നത് അതിൻ്റെ കോർട്ട് ചേഞ്ച് ചെയ്യില്ല ഇക്വലാണ് പാതി പാതി അപ്പം അതെല്ലാം ഊരി മജ്ജ വേറെ തന്നെ കളിക്കല് മനസിലായോ എങ്ങനെല്ലെങ്കിൽ അതിൻ്റെ ഒരു മജ്ജാന്ന് വെച്ചാല് തീരില്ല ക്രിക്കറ്റിൻ്റെ പിന്നെ കളിക്കാൻ ഈ ഷട്ടിലാണ് ഇപ്പോൾ ശല്യം ഷട്ടിൽ ഈ രീതിയിൽ തന്നെ പോകുന്നത് എനിക്കത്ര ലൈക്കില്ല ഷട്ടില് കളിക്കാന് ഞങ്ങളുടെ നാട്ടില് ചുറ്റുപാടെല്ലാം കളിക്കുന്നുള്ളു പിന്നെ മറ്റേ ഇത് ഹോക്കി ഹോക്കി പറയിലില്ലേ ഒരു കുണ്ഡ് ഇതീ കുണ്ടെടുക്കും അതിനുള്ളിലേക്ക് വലിച്ചിട്ട് അടിക്കുന്നത് ഹോക്കി കളിക്കുന്നത് അത് എനിക്കൊരു ലൈക്കില്ല കളിക്കുന്നതിന് മാത്രമല്ല ഞാൻ നോക്കാൻ പോകുന്നു പിന്നെ മറ്റേ ഇത് വോളിബോൾ വോളിബോൾ അത് ഒരു മജ്ജ വേറെ തന്നെ പത്ത് അവര് പത്തു പേര് കളിക്കുന്നു ഒര് ഭയങ്കര അടി വോളിബാളില് ടോപ്പില് ടോപ്പ് ആൻഡ് ടോപ്പ് വോളിബാളില് വരും കളി എങ്ങനെ എന്ന് വെച്ചാല് ടോപ് കളി ഒര് സ്മാഷും അതും ഇതും എല്ലാം ടോപ്പാണ് പറഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ഇ സീസൺ വരുന്നത് പോലെ കളിയെല്ലാം ഉണ്ടാകുമല്ലോ നാട്ടില് കളി എന്താന്ന് കമ്പവലി കമ്പവലി അല്ലെങ്കിൽ ഒര് പത്ത് അൻപത് പേര് അപ്പുറം ഇപ്പുറം ടീമാക്കുന്ന വള്ളി ഈ രണ്ടു സൈഡിൽ നിന്ന് ഇട്ടിട്ട് ഏത് സൈഡ് വലിച്ച് ഇപ്പോൾ ഈ സൈഡ് വലിച്ച് ഫുള്ള് വീണെങ്ങാന് ആ സൈഡ് തുറന്നച്ച് ഈ സൈഡ് അവർ ആ സൈഡ് അവര് വീണങ്ങാൻ അപ്പുറത്ത് വലിച്ചു അവര് ജയിച്ച് അതാണ് കമ്പികളി കളിക്കുന്നത് ഇവിടെ അത് വള്ളി വള്ളി അറിയില്ലേ വലിയ മറ്റേ പേരെക്കൽ കെട്ടുന്ന വള്ളി ഇല്ലേ മറ്റേ മാറ്റിലൊക്കെ കെട്ടുന്ന ആ വാളിനെ വലിച്ചിട്ട് കളിക്കുന്ന പിന്നെ അടുത്ത ചൊല്ലാനുണ്ടെങ്കില് മറ്റേത് എന്നാലിപ്പം വെച്ചെങ്കിൽ മറ്റേ ഈ മഡ് ഫുട്ബാൾ മഡ് ഫുട്ബോൾ അല്ലെങ്കിലേ ഒരു ഗ്രൗണ്ടു മഴ വന്നിട്ട് എല്ലാം ഫുള്ള് ചെളിയായിട്ട് അത് ഗാലക്സി ക്രീം ചോക്ലേറ്റ് കഴിക്കാന് വന്നിരിക്കുന്നിലെ അതില് പോയിട്ട് ഫുട്ബോൾ വെച്ചിട്ട് കളിക്കുന്ന് അത് എന്തോരം മജ്ജ കളിക്കാൻ അത് കളിയ്ക്കാൻ ടോപ് ആൻഡ് ടോപ് അത് അത് കളിച്ചെങ്കിൽ ഒരു വൈബ് അല്ലെങ്കിൽ ഒര് വൈബ് കളിക്കാനൊക്കെ ഇതെല്ലാം ഒരു നല്ല മജ്ജ ആണ് മജ്ജ ഇല്ലെങ്കിൽ ആ വീണ്ടും കളിക്കലും എന്നിട്ട് അളിക്കലും അത് പോകുന്നുണ്ടാവില്ല ബോള് മണ്ണില് ആ ചേറാക്കിട്ട് ബെട്ട് കിട്ടലും എന്നിട്ടാ മണ്ണിൻ്റെ പുറത്ത് ഇരുന്നിട്ട് ബാ ചെയ്യാം ചേറ് അതെല്ലാം തുടയ്ക്കാന് അതെല്ലാവരും മജ്ജ ആണ് പിന്നെ അന്നും നോക്കിയാൽ പിന്നെ നമുക്ക് ഇതും ഉണ്ട് മറ്റേ ഓണം ഇല്ലേ പൂക്കളെല്ലാം ഇടുന്ന ആ ടൈമിൽ വരുന്നത് ബോട്ടില് രണ്ട് അപ്പറയും ഇപ്പറയും വരുന്ന റേസ് കളിക്കുന്നത് വലിയ പുഴ അത് തൃശ്ശൂരിൽ മാത്രം ഉള്ള അത് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് ഫസ്റ്റ് ആര് അവർക്ക് ബമ്പർ സമ്മാനം പ്രൈസും അതും ഇതെല്ലം ഉള്ള അത് ടോപ്പ് ആൻഡ് ടോപ്പ് അറിഞ്ഞാൽ പിന്നെ കുറെ ഉണ്ട് കേട്ടോ കളി പിന്നെ കാളൻ്റെ കാളൻ്റെ മറ്റേ വലിയ നല്ല തിന്നിട്ട് പത്ത് എല്ലാം കൊടുത്തിട്ട് വലിയ ഒരു പോത്തിനെ വെക്കുന്ന് എന്നിട്ട് ആ പോത്തിനെ എന്താക്കുന്നൂന്നു ആ പോത്തിനാ പായിപ്പിക്കുന്നു ഫുള്ളും എന്നിട്ട് ആഹ് പോത്ത് പാഞ്ഞ് പാഞ്ഞിട്ട് അവിടേക്ക് എത്തുന്നില്ലങ്കിലേ അങ്ങനെ ഗ്രൗണ്ട് ഫുള്ള് പായണം മനുഷ്യന്മാരെ കുത്തുന്ന അതാണ് കമ്പ് വെല്ലു കളിക്കുന്ന പിന്നെ അതുകഴിഞ്ഞും പിന്നെ അടുത്തുള്ള ഏതെന്ന് ചൊല്ലിയെങ്കിൽ ഇല്ലേ പിന്നെ ഞങ്ങള് കളിക്കല് പിന്നെ മറ്റേത് പിന്നെ കുറെ ഉണ്ട് വിടെ എന്തെല്ലാം ഉണ്ട് പിന്നെ ഗോളി ഗോളിൻ്റെ എന്തൊരു മജ്ജ ആ മജ നിങ്ങൾക്ക് ചൊല്ലിയെങ്കിൽ അറിയില്ല മോനെ ഗോളി എന്തെങ്കിൽ ഇല്ലേ പല വില കെട്ടുണ്ട് പീടികയിൽ പോകുന്ന് അഞ്ച് റുപ്പിയ ആറ് ഉറുപ്പിയ എല്ലാം കട്ടോണ്ട് അന്നിട്ട് പോയിട്ട് ഇങ്ങനെ ചുറ്റിനും ഗോലി വെക്കുന്ന് ഗോലി വെച്ചിട്ട് ഇങ്ങനെ ലൈനിലാണ് അതിലേക്ക് ഇങ്ങനെ വലിച്ചിട്ട് എറിഞ്ഞപ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഗോലി പോയിട്ട് അപ്പുറത്തേക്ക് പിന്നെ വീണപ്പം എന്നിട്ട് ഗോലിക്ക് വേണ്ടിട്ട് കളിക്കുന്ന ഒരു ഗോലിക്ക് വേണ്ടിട്ട് ആദ്യം എന്തോരം മജ്ജ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ അത് എന്തോരം മജ്ജ ആക്കും ഗോലി കളിക്കുന്നതെന്ന് വെച്ചാല് ടോപ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പാണ് കേട്ടോ ഗോലിൻ്റെ കളി പക്ഷെ ആ ഗോലിൻ്റെ കളില് ഇല്ലെങ്കിൽ ആ ഗോലി കളിക്കുന്നത് ഞങ്ങൾ ഇരുന്നിട്ട് അത് എന്തോരം മജ്ജ എന്ന് അറിയുമോ ഗോളി കളിക്കാന് അപ്പം അത് ചൊല്ലിയെന്നെങ്കില് ആ ഗോളിലെ കളിയോന്തും അറിയല്ല ആ ഗോലി കളിക്കാൻ ഞാൻ മാത്രമല്ല കുറെ ആളിരിക്കുന്ന ഗോലി കളിക്കാന് കുറെ ആള് ഇല്ലെങ്കിൽ ഞാന് എൻ്റെ നാട്ടിലത്തെ ചങ്ങായിമാരെല്ലാം അവർ എല്ലാവരും ഇരിക്കുന്നു എന്നിട്ടാണ് ഗോലിയൊക്കെ കളിച്ച് തല്ലെല്ലാം ഉണ്ടാക്കി ഞങ്ങൾ നേരെ പോകുന്നത് ടർഫിലേക്ക് ടർഫിലേക്ക് പോയിട്ട് അവിടെന്ത് ഇങ്ങനെ പെണ്ണുങ്ങൾ കളിക്കുന്നത് ക്രിക്കറ്റ് ഫുട്ബോളാണ് അതെല്ലാം ഞങ്ങൾ കളിക്കുന്നത് ടർഫിൽ ഞങ്ങ ടർഫിൽ ആദ്യം ഇതെല്ലം കളിച്ച് ഞങ്ങൾ നേരെ കിഴക്ക് പോകുന്നു ട്ടിട്ട് ഇരിക്കുന്നു എന്നാൽ അത് കളിച്ചിട്ട് അതാ ബോളെല്ലാം എടുത്തിട്ട് നേരെ ക്ലബിന് വെളിയിലെല്ലാം വെച്ചിട്ട് ഞങ്ങൾ നേരെ പോകുന്നതായിരിക്കും പോകുന്ന ആ ഈ കളിക്കുന്ന ഷട്ടില് കളിയ്ക്കാൻ തുടങ്ങുന്ന ഷട്ടില് ഷട്ടില് ഞങ്ങൾ കോക്കും അപ്പുറവും ഇപ്പുറവും നെറ്റിട്ട് ഞങ്ങൾ കളിക്കുന്ന ആഹ് കളികളിച്ചിട്ട്

ഒര് ബാറ്റ് ബാറ്റില്ലെങ്കിൽ അതിനത്ത് ബോൾ ഇരിക്കും അത് തന്നെ അടിച്ചിട്ട് കളിക്കണം അതൊരു മജ്ജ പിന്നെ ക്യാരം ബോർഡ് കളിക്കുന്ന ക്യാരം ബോർഡ് ക്യാരം ബോർഡ് ടോപ് ആൻഡ് ടോപ്പ് മറ്റെ ഇങ്ങനെ വെച്ച് നിങ്ങൾ അടിക്കുന്ന അതിങ്ങനെ ബോർഡ് അതിങ്ങനെ സ്കോർ ആക്കിയിട്ട് കളിക്കുന്നത് വലിയതിന് ഇത്ര വേണ്ടത് ചെറിയതിന് ഇത്ര ചുവന്നതിന് വേണ്ടാതെ കളിക്കുന്ന നല്ല ഗെയിം തന്നെ കളിക്കാൻ പിന്നെ ഒന്നും അതുകഴിഞ്ഞ് പിന്നെ ഉള്ളത് മറ്റേ ചെസ്സ് കളി കളിക്കുന്ന ചെസ്സെന്ന് വെച്ചെങ്കിൽ ചെസ്സൊരു മജ്ജ വേറെ തന്നെ ചെസ്സ് കളിക്കാന് അത് മറ്റേ കൊത്തിയിട്ട് കളിക്കുന്ന അതെന്തോരം മജ്ജ കളിക്കുന്ന കളിക്കുന്ന പിന്നെ മറ്റേ സ്നേക് ആൻഡ് ലാഡറ് മറ്റേ ലുഡോ ലുഡോ കൊത്തുന്ന ബാക്കിൽ പാഞ്ഞ് പാഞ്ഞ് പാഞ്ഞ് പാഞ്ഞിട്ട് അത് കൊത്തുന്നതിൽ ഫസ്റ്റ് ആരാന്നു സെക്കൻറ്റ് ആരെന്നും പിന്നെ സ്നേക് ആൻഡ് ലാഡറ് അതില്ലെങ്കിൽ എന്താകുക റബ്ബേ അത് കളിച്ചെങ്കിലേ പിരാന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് പിരാന്ത് ആകുന്ന് പിരാന്ത് ആകുന്ന് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കഷ്ട്ടം വന്നിട്ട് ഒന്ന് രണ്ട് മൂന്ന് എത്തിട്ട് അവിടുന്ന് ഏണി കയറി കയറി കയറി ഏണി കയറി കയറി കയറി കയറി കയറി കയറി കയറി ലാസ്റ്റ് ബാക്കി ഇങ്ങനെ കളിക്കണം അത് മാത്രല്ല ഭയങ്കര ഒരു മജ്ജ ആണ് ആ കളി സ്നേക് അല്ല മറ്റെ സ്നേക് ആൻഡ് ലാഡർ ചുവന്ന ഞങ്ങൾ ചുവന്ന പാമ്പും ഏണിയും ആയിട്ട് കളിക്കുന്ന പാമ്പും കളിക്കുന്നതെന്ന് പറഞ്ഞാല് ഏണി ഇറക്കി കളിക്കുന്ന എന്നിട്ട് വേറെ കളി ഞങ്ങൾക്ക് നല്ല ലൈക്കായത് കളി ഒന്നുമില്ല ഞങ്ങൾക്ക് ഇത് തന്നെ മറ്റ് എന്തുമില്ല ഫുട്ബോൾ കളിക്കുന്ന ഫുട്ബോളിൻ്റെ അത്ര മജ്ജ നമുക്ക് ഏതും വരില്ല അതെന്ന് ചൊല്ലിയെങ്കിൽ അതൊരു വികാരമാണ് ഫുട്ബോൾ അതൊരു മജ്ജ ആണ് തന്നെ അത് എങ്ങനത്തെ ഒരു എങ്ങനത്തൊനും കളിയ്ക്കാൻ ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന ഒരു കളിയാണ് ഫുട്ബോള് അത്